ആ സൗമ്യ മിസ് അല്ലേ ആ ഞാൻ അഖില ആണ് വിഷ്ണുവിൻ്റെ അമ്മ ആണ്

ആ അതെ അതെ എന്താ മിസ്സേ അവന് നല്ലോണം മാർക്ക് കുറവ് ആണല്ലോ ഇപ്പോൾ ഒട്ടും മാർക്ക് ഇല്ല പേപ്പർ ഒക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഫുൾ മാർക്ക് കുറവ് ആണ് എന്താണെന്ന് അറിയുന്നില്ല അവൻ എന്താ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ലേ

ആ അവൻ എന്താ ആ പിന്നെ ഇല്ലേ ആ മിസ് പറയ് ആ അവൻ ഒക്കെ അവൻ്റെ ആൻസർ ഷീറ്റുകൾ കാണിക്കുന്നുണ്ടായിരുന്നില്ല ആൻസർ ഷീറ്റ് ഷീറ്റ് ഞാൻ കുറേ ചോദിച്ചിട്ട് പിന്നെയാ നോക്കുമ്പോൾ അപ്പോൾ ചെക്ക് ചെയ്യുമ്പോഴാ കണ്ടത് ഇങ്ങനെ മാർക്ക് നല്ലോണം കുറവ് ആയിട്ട് അവന് പറയാനും പേടി ആദ്യം ഒക്കെ പിന്നെയും പഠിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആണെങ്കിൽ മാർക്ക് കുറഞ്ഞത് കാണുമ്പോൾ എന്നെ കാണിക്കാൻ പേടി ആയിട്ടാ തോന്നുന്നു കാണിക്കുന്നതുതന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ അവൻ്റെ ആ ഞാൻ ചോദിക്കാറുണ്ട് എന്താ വന്നിട്ട് ചെയ്യാത്തത് ചെയ്യാത്തത് ചോദിക്കുമ്പോൾ പറയും ഹോം വർക്ക് ഒന്നും തന്നിട്ട് ഇല്ലായെന്നാ പറയല്

ഇല്ല വീട്ടിൽനിന്ന് ഒന്നും നോക്കുന്നില്ല ബുക്ക് എടുക്കുന്നില്ല വീട്ടിൽനിന്ന് ഞാൻ എടുക്കാൻ പറഞ്ഞാലും കളിതന്നെ ആണ് ഭയങ്കര ഉഴപ്പ് ആണ് ഇപ്പോൾ ചെയ്യുന്നും ഇല്ല ഹോം വർക്ക് പറയുന്ന ഹോം വർക്ക് ഒന്നും തന്നിട്ട് ഇല്ല മിസ്സ് അല്ലെങ്കിൽ ചിലപ്പോൾ ക്ലാസ്സിൽനിന്ന് ഞാൻ ചെയ്തു അങ്ങനെ ഒക്കെയാ പറയുന്നത് എന്നോട് ആ മാത്സ് പറയുന്നില്ല മിസ്സ് ഒന്ന് കാര്യം ആയിട്ട് ശ്രദ്ധിക്കണം ആ കാര്യം ആയിട്ട് ഒന്ന് ശ്രദ്ധിക്കണം ഇങ്ങനെ പോയാൽ ശരി ആവൂല്ലല്ലോ ഇനി ടെൻത്ത് എല്ലാം എത്തുമ്പോൾ നല്ലോണം അവൻ ബുദ്ധിമുട്ടും മാത്സ് ഒക്കെ നല്ലോണം വീക്ക് ആ ശരി ആ ശരി ആ